ഹലോ ആ ഇത് ടൈലറിംഗ് ഷോപ്പ് അല്ലേ ആ നമ്മളേ ഇവിടെ അടുത്ത് പള്ളൂർ സ്കൂളിൽ നിന്ന് മാഷാണേ വിളിക്കുന്നത് ആ നമുക്ക് നമുക്ക് അടുത്ത ഇരുപത്തിനാലാം തീയതി നമ്മളിവിടെ ഓണപരിപാടി വ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാറമ്മാർക്ക് എല്ലാവർക്കും കൂടി ഒരു സെയിം ഡ്രസ്സ് വേണ്ടിയിട്ടായിനു അപ്പോൾ അതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമോ എന്നറിയാനായിനു

നമ്മൾ ഒരു ഇരുപത് പേരുണ്ടാവും

ഓ ടീച്ചേഴ്സ് ടീച്ചേഴ്സിനാണ്

ഉം ആ ഇത് ഫീമെയിൽ ടീച്ചേഴ്സിനില്ലേ ആ ആ ഫീമെയിൽ ടീച്ചേഴ്സിന് സാ സാരിയാണ് പറയുന്നത് അത് വൈറ്റിന് ഓര് വൈറ്റ് ഷർട്ട് വൈറ്റ് സാരി ആയിട്ട് വരും നമ്മൾ സാർമാർക്കേ ഷർട്ടിന് വേണ്ടിയിട്ടായിരുന്നു

നിങ്ങൾ എടുക്കില്ലേ നമ്മൾ ഇപ്പോൾ ഈ തിരക്കിന്റെ ഇടയിലേ ആ സെയിം കളർ ആ ഡ്ര കോഡ് ആണ് നമ്മൾ പറയുന്നത് ഒരു ബ്ലാക്കിൽ പ്രിൻ്റ് വരുന്നത് പ്രിൻ്റ് വരുന്നത്

പ്ലെയിൻ കളർ ആണോ പ്ലെയിൻ കളർ കളർ ആണ് എന്നാൽ പിന്നെ ബ്ലാക്ക് തന്നെ ആയിക്കോട്ടേ പ്രിന്റ് ഇല്ലാണ്ടെ ആ ആ ബ്ലാക്ക് കളർ നല്ല നല്ല ക്ലോത്ത് നോക്കി എടുക്കണേ ആ ഞാൻ ആ അത് ഞാൻ വാട്സ്ആപ്പ് ചെയ്യാം ആ ആ ആ ആ ആ ഒരാൾക്ക് ഇത്ര സൈസ് ആ ആ ആ ആ അത് ഞാൻ ചെയ്യാം ആ അപ്പോൾ ആ ആ അഡ്വാൻസ് ചെയ്യാം അഡ്വാൻസ് ചെയ്യാം അപ്പോൾ നല്ല ക്ലോത്ത് എടുക്കില്ലേ ആ കോ കോ കോട്ടൺ മതി

വേണ്ട വേണ്ട വേണ്ട വേണ്ട കോട്ടൺ മതി വേണ്ട വേണ്ട കോട്ടൺ മതി ഇത് ഒരു ജസ്റ്റ് യുസിനല്ലേ അതുകൊണ്ട് ആ അപ്പോൾ അതിന്റെ റേറ്റും ആ ഹാ ആ ഹാ അ ആ ആ ആ ആ അപ്പോൾ നമുക്ക് ഉം ആ ആ അത് നിങ്ങൾ പറഞ്ഞാൽ മതി ആ ആ ഞാൻ വാട്സാപ്പിൽ ഡീറ്റെയിൽസ് സൈസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയയ്ക്കാം ആ പെയ് ആ ആ ആ അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ പെയ്മെൻ്റ് ചെയ്യാം ആ

ആ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ